ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ട് രണ്ട് രണ്ട് രണ്ടായിരത്തി മൂന്ന് നാല് നാല് രണ്ടായിരത്തി ആറ് ഏഴ് ഏഴ് രണ്ടായിരത്തി എട്ട് എട്ട് എട്ട് രണ്ടായിരത്തി പത്ത്